കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഫാഷനും സ്റ്റൈലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഓരോന്ന് റിപ്പോർട്ട് ചെയ്യുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പല പരസ്യങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത് അതായത് ഈ വിവാഹ സാരികളുടെ പരസ്യങ്ങളാണെങ്കിലും മറ്റേ ഈ കമ്മലുകൾ അല്ലെങ്കിൽ മറ്റേ സ്വർണ്ണത്തിേൻ്റെയൊക്കെയുള്ള മറ്റു അങ്ങനെയുള്ള ഓരോ പരസ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് അന്തംവിട്ടു പോവും എന്നു പറിഞ്ഞാൽ ചെലക്ക ഇതായത് ഈ പരസ്യത്തി കാണിക്കുന്നതുമായി ഈ സാധനങ്ങളുവായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നത് ഒരു എന്നു പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാക്കുക പോലും ഇല്ല അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പം കേരളത്തിൽ ഇപ്പം നടന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇപ്പം ഒരു കമ്മലിൻ്റെ പരസ്യം അല്ലേ ഒരു സ്വർണ്ണത്തിൻ്റെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി എന്തോ ഭയങ്കരമായിട്ട് അല്ല അവർ പറയുന്നത് അവരുടെ മാത്രമാണ് അല്ലെങ്കിൽ നയൻ വൻ സിക്സ് അവരുടെ സാധനങ്ങൾ മാത്രമാണ് നല്ലത് ബാക്കിയുള്ളവരുടെ സാധനങ്ങളൊക്കെ വെറും മോശമാണ് പിന്നെ ചില അതുപോലെ തന്നെ ഈ പരസ്യത്തിൽ ചില നടന്മാർ അങ്ങനെയുള്ള ഈ ആൾക്കാരെക്കുറിച്ചൊക്കെ നല്ല നടിമാര് ഇങ്ങനെയുള്ളവരെയൊക്കെ കാണിക്കുന്നതു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കണ്ടു അങ്ങ് മയങ്ങി പോവുകയാണ് അതുപോലെ ചില നടി അണുങ്ങളാണെങ്കിൽ ചില നടിമാർ വന്നു അങ്ങ് ഉൽഘാടനം ചെയ്യുന്നു ആ അവർ വന്നങ് സ്വർണക്കട ഉൽഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അതിൻ്റെ ഒരു തിക്കും തിരക്കുമായിട്ട് അങ് നീങ്ങും അല്ലെങ്കിൽ കുറേ പെൺകുട്ടി സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ നല്ല സിനിമാ നടമാർ അങ്ങനെയൊക്കെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർ വന്ന കടയല്ലേ പിന്നെ അങ്ങ് തിരക്കോട് തിരക്കായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇപ്പം ഒരു ആൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു ബോച്ചേ എന്നും പറഞ്ഞത് അങ്ങേരാണെങ്കിൽ ഇപ്പം പരസ്യം എന്താണ് കാണിക്കുന്നത് കള്ളിൻ്റെ കള്ള് ഷാപ്പില്രെ തെങ്ങിൽ കേറുന്ന പരസ്യം വരെയാണ് കാണിക്കുന്നത് അത്രത്തോളം ചില പരസ്യങ്ങളുണ്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്രത്തോളം അധപധിച്ചു പോയല്ലോ എന്ന് തോന്നിപ്പോവും നമുക്ക് അങ്ങനത്തെ ഒരു രു കാര്യമാണ് ഇപ്പം എന്താണ് പറയന്ന് പിന്നെ ഈ എന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ ഒരു ഒരു യാതൊരു വിധത്തിലുള്ള ഒരു പൊരുത്തവുമില്ലാത്ത ഒരു കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം നടന്നു കൊണ്ടിരിക്കുന്നത് പ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ തീരെ ആധപതിച്ചു പോയി എന്ത് വേമെങ്കിലും ആർക്ക് എന്ത് വേണമെങ്കിലും വായിക്കാം വാർത്തയിൽ വായിക്കാം അല്ലെങ്കിൽ പറയാം അല്ലെങ്കിൽ എഴുതാം ഏ ചെയ്യാം അവർ അങ്ങ് എന്നു പറഞ്ഞാൽ അമിത സ്വാതന്ത്ര്യമാണ് അവർ കാണിക്കുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ അങ്ങോട്ട് പരസ്യത്തിൽ ലുജനങ്ങള കൊള്ളടിക്കയാണ് ചെയ്യുന്നത് ഒരു ടിവി വെച്ചാലോ പരസ്യം പരസ്യം പരസ്യം പരസ്യം പരസ്യം നേരത്തെും കാലത്ത് ഒരു പരിപാടി കണ്ടിട്ട് തീർത്തിട്ട് പോകൻ പറ്റോ ആ അത് ഇല്ല അങ്ങനത്തെ ഒരു കേസാണ് കേരളത്തിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലല്ല മൊത്തത്തിൽ അങ്ങനെയാണെങ്കിലും കേരളത്തിലെ കാര്യം അങ് പറഞ്ഞൂള്ളതേള്ളു